ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ സംസ്കാരവും അതുപോലെ തന്നെ ഓരോ ഭാഷയുമാണ് അപ്പോള് നോർത്തിലേക്കൊക്കെ പോവുമ്പോള് പല പല സംസ്ഥാനങ്ങളിലും ഹിന്ദി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ മലയാളം എന്ന് പറയുന്നത് കേരളത്തില് മാത്രം ആളുകള് സംസാരിക്കുന്നൊരു ഭാഷയാണ് പക്ഷെ കേരളത്തില്നിന്ന് വെളിയിലേക്കൊരുപാടാളുകള് പല സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട് അപ്പോള് അവര് ഇതുപോലെ അവര് വഴിയാണ് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെയും ഭാഷയുടെയും ഒക്കെ ഒരു ഒരു വിനിമയം നടക്കുന്നത് അപ്പോള് മലയാ മലയാളികളൊരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളില് ജോലിക്കും മറ്റുമൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട് അപ്പോള് അവരിലൂടെയാണ് പ്രധാനമായിട്ടും മലയാള ഭാഷയും മലയാളത്തിന്റെ സംസ്കാരവുമൊക്കെ പുറത്തേക്കെത്തുന്നത്